എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട എംബ്രോയ്ഡറി സ്റ്റിച്ചസാണ് തുന്നുകയിലുള്ളത് എംബ്രോയ്ഡറി ആവുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെതായിട്ടുള്ള മോട്ടിവ്സ് പല പല ഡിസൈൻസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കസ്റ്റമേഴ്സിന് അതുമല്ല എംബ്രോയ്ഡറി സ്റ്റിച്ചസാണെങ്കിൽപ്പോലും ബഞ്ചാറ ചിക്കൻകാരി കാന്താവർക്ക് അങ്ങനെ പല പല സ്റ്റേറ്റിൽ പല പല ഡിസൈൻസാണ് അവര ചെയ്യുന്നത് നമുക്കുതന്നെ പല പല എംബ്രോയിട്ടറി സ്റ്റിച്ചസാണെങ്കിൽപ്പോലും വെറൈറ്റി സ്റ്റിച്ചസുണ്ട് സ്റ്റെമ്മ് ചെയിൻ സ്റ്റിച്ച് പല പല ഇപ്പോൾ നമുക്ക് ഫ്ലവേഴ്സാണെങ്കിൽപ്പോലും ഈ ഒരു ഡ്രെസ്സിന് നമ്മൾക്ക് ഈ ഇപ്പോൾ തന്നെ നമ്മൾ ബ്ലൗസ്സസിൽ വെഡിംഗ് ബ്ലൗസ്സസിൽ ചെറുക്കന്റേയും പെണ്ണിന്റേയും പേരോ അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റൊരു മോട്ടിഫോ നമ്മൾ ഏഡ്ഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുൽകാരി അങ്ങനെ കാന്താ ചിക്കൻകാരി മിററ് വർക്ക് പല പല രീതിയിൽ നമുക്ക് തുന്നി എടുക്കാനായാലും നെയ്തെടുക്കാനാണെങ്കിലും പല പല ഡ്രസ്സസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ മെയിനായിട്ട് നമ്മൾ എംബ്രോയിട്ടറി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കത് കാണുമ്പോൾത്തന്നൊരു വേറൈറ്റി ഒരു പൂവാണെങ്കിലും അല്ലെങ്കിൽ ഒരു മോട്ടിഫ് അല്ലെങ്കിൽ മിറർ വർക്കാണെങ്കിൽപ്പോലും അതിന് ചുറ്റുമുള്ള ഓരോ സ്റ്റിച്ചസും ഭയങ്കര പെർഫെക്റ്റ്ലി പെർഫെക്റ്റായിരിക്കണം പിന്നെ മെയിനായിട്ട് നമ്മൾ നെയ്യുമ്പോൾ നെയ്യലാണെങ്കിൽ മെയിനായിട്ട് സാരി പല പല സാരി കസവ് പട്ട് പലത് നമുക്ക് ചെയ്യാൻ പറ്റും പട്ടാണെങ്കിൽപ്പോലും നമ്മൾ പട്ടുനൂൽ പുഴുവിൽ നിന്ന് എടുക്കുന്ന നൂലാണ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോഴത്തെ ഫാഷൻ എന്നു പറയുന്നത് ഇനി പല പല സാരീസ് പല പല വെറൈറ്റീസിലുണ്ട് അത് തുന്നിക്കഴിഞ്ഞിട്ട് ഓരോന്ന് അതിൽ ചെയ്യുക അല്ലെങ്കിൽ അതിനകത്ത് വെറൈറ്റി കളേഴ്സ് ഏഡ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഓരോ ഡിസൈൻസ് കൊടുക്കുക അങ്ങനെ പോവും അന്നു നെയ്ത് കഴിഞ്ഞ ഒരു സാരി നമ്മൾ എങ്ങനെ പെർഫെക്ട് ചെയ്തെടുക്കുന്നു അങ്ങനെ പലവക കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കാം നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിതൊക്കെ കൂടുതലും എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈമെടുക്കും ബട്ട് അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരിക്കും കാരണം എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പം പണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോഡായാലും ത്രെഡായാലും നീഡിലായാലും എല്ലാം ഉണ്ട് അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പെർഫെക്ട് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് ചെയ്തു ചെയ്തു വരുമ്പോഴേ നമ്മൾക്ക് ശരിയായി വരത്തുള്ളൂ ആദ്യമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പിന്നീട് പക്ഷേ ഇത് വരുമ്പോൾ വളരെ നല്ലതായിട്ട് കിട്ടും നെയ്യുമ്പോൾ ആണെങ്കിൽപ്പോലും നമ്മൾ കൈത്തറി പല പല ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ കസവ് മുണ്ട് സെറ്റ് സാരീസ് എല്ലാം നമ്മൾ നെയ്തിട്ടാണ് എടുക്കുന്നത് സാരി ബെയ്സ് ചെയ്തിട്ടാണെങ്കിൽ നെയ്തെടുക്കുന്ന സാരീസിന് പല പല ഡിസൈൻസും കാര്യങ്ങളും ഏഡ്ഡ് ചെയ്തിട്ടാണെങ്കിലും വളരെ നല്ല രീതിയ്ക്ക് ഓരോ ഡ്രസ്സസാണെങ്കിലും നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും